ഹലോ ആ ഞാൻ നഗരത്തിന് പുറത്താണെങ്കിൽ എൻ്റെ കുടുംബമായിട്ടൊരു കോൺടാക്റ്റും എനിക്ക് പറ്റുന്നില്ല എൻ്റെ മൊബൈലില് റീചാർജ് ഇപ്പം കിട്ടുന്നില്ല എനിക്ക് ഈ മൊബൈൽ നമ്പർ ഒന്ന് റീചാർജ് ചെയ്യണമെന്ന് ഉണ്ട് ഞാനൊരു ഫോണെടുത്തത് റീചാർജ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു ആ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ആ എനിക്ക് നാനൂറ് രൂപയുടെ റീചാർജ് ആയിരുന്നു വേണ്ടത് ആ ആ എത്ര ദിവസത്തേന് കാണും ഒരാഴ്ചത്തേനോ ആ അത്രേ ഉള്ളല്ലേ ആ ഏതായാലും എനിക്ക് വീട്ടിൽ വിളിക്കാതെ പറ്റത്തില്ല എൻ്റെ ഫോണിൽ നഗരത്തിന് പുറത്തായതുകൊണ്ട് ആരെയും ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ ഹാ ആ എൻ്റെ മൊബൈൽ നമ്പറ് ബി എസ് എൻ എൽ ആണേ ആ ഇത് ഇവിടെ റേഞ്ച് ഉള്ളത് ബി എസ് എൻ എല്ലിനാ ആ അപ്പം അതൊന്ന് ചാർജ് ചെയ്യാൻ പറ്റുമോ മ് മ് എപ്പോഴത്തേന് ചാർജ് ആവും ഉച്ചയാവുമ്പോഴത്തേനോ ആ എനിക്ക് ഉടനെ ഒന്ന് ചെയ്തുകിട്ടുവായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നേ ആ എന്തായാലും വീട്ടിലോട്ട് വിളിക്കാതെ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ ഓർക്കില്ലേ എവിടെ പോയി എന്ന് ആ അപ്പോൾ ഉടനെ റീചാർജ് ചെയ്ത് കിട്ടുമെങ്കിൽ നന്നായിരുന്നു ആണോ ഓക്കെ ശരി ടാങ്ക് യൂ